എനിക്ക് ടൂറ് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഇപ്പം അടുത്തു പോയതിൽ ഏറ്റവും ഇഷ്ട്ടമുള്ളത് മലമ്പുഴ ആണ് മലമ്പുഴയിൽ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് പിന്നെ ഡാമുണ്ട് അതേ മാതിരി ബോട്ടിങ്ങുണ്ട് പാര്ക്കുണ്ട് പൂക്കളുണ്ട് കുട്ടികള്ക്ക് കളിക്കാനുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഊഞ്ഞാലും കണ്ണില് കണ്ടതെല്ലാം ഉണ്ട് അതേ പോലെ ഡാമിന്റെ മുകളിൽ നിന്നാൽ ഒരുപാട് സ്ഥലം കാണാം നല്ല രസാണതിന്റെ മേലെ അവിടെ നിന്നാൽ നമ്മൾക്ക് ഇറങ്ങിപ്പോകാന് തോന്നുന്നേ ഇല്ല അത്രയും നല്ല കാറ്റും എല്ലാം കാണാനുള്ളൊരു ഒരിതും കൂടെയാണ് ആ ഡാമ് അതുകൊണ്ട് അതാണെനിക്കിഷ്ടം